ഇപ്പോൾ നമ്മൾ കൂടുതൽ ആയിട്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട് പണിയും കാര്യങ്ങളൊക്കെയാണ് ഞാൻ എടുക്കുന്നത് അപ്പോൾ അതിന്റേതായ ചില പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടാകും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീടുപണി എടുക്കുമ്പോൾ നമ്മൾ കറക്റ്റ് സമയത്ത് തീർത്തു കൊടുക്കാമെന്ന് അവരോട് വാർക്ക് വാക്കും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടാകും പക്ഷേ നമുക്കത് ചിലപ്പം തീർത്തു കൊടുക്കാൻ പറ്റാത്ത സാഹചര്യം വരാൻ ചാൻസ് ഉണ്ട് കാരണം എന്താവെച്ച് കഴിഞ്ഞാലിപ്പം ഒരു വീട് പണിയണമെങ്കിൽ നമുക്ക് ഏ റ്റു സെഡ്ഡ് കാര്യങ്ങൾ ചെയ്യണം അപ്പം നമ്മളതിന് കൂടുതലായിട്ടും വേണ്ടത് എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ കല്ല് വെട്ടുകല്ല് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കൂടുതലായിട്ട് നമ്മൾ എടുക്കുന്നത് അപ്പോൾ അതിൻ്റെ എന്തെങ്കിലും സമരവും കാര്യങ്ങൾ ഇപ്പോൾ ലോറി സമരം വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് കല്ലൊക്കെ ഇവിടെ കൊണ്ടുവന്ന് ഇറക്കാൻ വേണ്ടിയിട്ടൊക്കെ ബുദ്ധിമുട്ടായിരിക്കും നമുക്കിപ്പോൾ ഒരു വീട് പണിയ പണിയണമെങ്കിൽ നമുക്ക് എന്തായാലും എം സാൻഡ് കാര്യങ്ങൾ പിന്നെ നമുക്ക് ജിപ്സം കല്ല് അങ്ങനത്തെ പല രീതിയിലുള്ള കല്ലും കാര്യങ്ങളൊക്കെ നമുക്ക് ആവശ്യം വരും അപ്പം നമ്മൾ അടിയിലെ തറ കെട്ടുന്ന പോലും കല്ലിലാണ് അപ്പം നമുക്ക് ക്വാറി സമരവും കാര്യങ്ങളൊക്കെ വന്നുകഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് നമ്മൾ പെട്ടിരിക്കും കാരണമെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയങ്ങളിൽ ഇതൊന്നും കിട്ടാണ്ടാകും നമ്മൾ ചിലപ്പോൾ തീർത്തു കൊടുക്കാൻ പറ്റാണ്ടായിപ്പോകും പക്ഷേ എന്നാലും നമ്മൾ വേറെ സൈറ്റുകളിൽ നിന്നൊക്കെ എങ്ങനെയെങ്കിലും ഒക്കെ ഒപ്പിച്ചു ഞാൻ തീർത്തു കൊടുത്തിട്ടുണ്ട് ഒന്ന് രണ്ട് വീട് അങ്ങനെയൊക്കെയാണ് ഞാൻ കൂടുതലായിട്ടും തീർത്തു കൊടുത്തത്